നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലെ പരമ്പരാഗതമായ ഒരു നൃത്തരൂപമാണ് മാർഗ്ഗംകളി നമ്മൾ പരമ്പരാഗതമായ ഡ്രസ്സിങ്ങും ആഭരണങ്ങളുമണിഞ്ഞ് നമ്മുടെ തോമാശ്ലീഹ ചരിത്ര ചരിത്രമാണ് മാർഗ്ഗംകളിയിലൂടെ നമ്മളവതരിപ്പിക്കുന്നത് നൃത്തരൂപത്തിൽ തോമാശ്ലീഹ കേരളത്തിലെത്തി ഇതിൻ്റെ കഥയും അതിനെക്കുറി ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളും നൃത്ത രൂപത്തിൽ കാണികൾക്ക് മനസ്സിലാവുന്ന പദ്യ ഗാന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരാൾ ഗാനം ആലപിക്കുന്നു ബാക്കിയുള്ള ആറോ എട്ട് അങ്ങനെയുള്ള സംഘങ്ങൾ നൃത്തം അവതരിപ്പിക്കുന്നു പരമ്പരാഗത വേഷമായ ചട്ടയും മുണ്ടും നേര്യതും ധരിച്ച് ചെവിയിലിടുന്ന കാലിൽ തളയും കുണുക്കും മാലയും കൊന്തയുമൊക്കെ അണിഞ്ഞ് പരമ്പരാഗതമായ ക്രിസ്ത്യ വേഷത്തിൽ നമ്മൾ മാർഗ്ഗംകളി അവതരിപ്പിക്കുന്നു തോമാശ്ലീഹാ ചരിതം ചരിത്രം മാർഗ്ഗംകളിയിലൂടെ അവതരിപ്പിക്കുന്നു